ആൽബി സാറല്ലേ ആ ഞാൻ സാറിൻ്റെ കോച്ചിങ്ങ്ന് താൽപര്യമുണ്ട് ചേരാൻ

ഡെയ്ലിയുണ്ടോ ആ എത്ര മണിക്ക്

വരുന്നന്നേരം വർക്കൗട്ടൊക്കെയൊണ്ട്

ആ അറിയണം ഈ ടീമിനെ നമുക്ക് വെളീലൊക്കെ കൊണ്ട് പോകാറുണ്ടോ ആ പുറത്തേക്ക് കൊണ്ട് പോകാറുണ്ടോ

ആ അത് എത്രയാണ് ആ എത്ര പ്രാവശ്യം അറുനൂറോ അപ്പോൾ ഇതിൻ്റെ മാസ ഫീസ് എത്രയാണ്

ആ വീട് അടുത്താണ് ആ സ്ഥലത്ത് വരെയുണ്ട് ആ ബസ്സൊണ്ട് സൈക്കിളൊക്കെ ഉണ്ട്

ഇല്ലയില്ല

ആ ഉണ്ട് ഉണ്ട് ടൂർണമെൻറിലൊക്കെ പോകാറുണ്ട്

ആ അറിയാം അറിയാം